മലയാളം എന്നു പറഞ്ഞത് നമ്മുടെ മാതൃഭാഷയാണ് മാതൃഭാഷ ഓരോ മലയാളികളും പഠിക്കേണ്ടത് ഏറെ ആവശ്യകത നിറഞ്ഞ ഒന്നാണ് കാരണം എവിടെ ചെന്നാലും ഏതു നാട്ടിൽ ചെന്നാലും അവനവന് അവരവരുടെ മാതൃഭാഷ തന്നെയാണ് എത്ര ഇംഗ്ലീഷും മറ്റു ഭാഷകളും വലിയ നിലയിൽ വന്നാലും ഒരു കേരള കേരളീയന് അവനവൻ്റെ ആ അവൻ്റെ ഭാഷയായ മലയാളം തന്നെയാണ് എപ്പോഴും മുൻഗണനയും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഭാഷ അതുകൊണ്ട് എല്ലാ കുട്ടികളും മലയാള ഭാഷ സ്വന്തം മാതൃഭാഷ പഠിക്കേണ്ടതും മാതൃഭാഷയിൽ അറിവു നേടേണ്ടതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്